ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും പണ്ടുള്ളവർ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിയും കയറും ഉപയോഗിച്ചിട്ടാണ് കപ്പിയും കയറും ബക്കറ്റും ഉപയോഗിച്ചിട്ടാണ് കിണറ്റിൽനിന്നും വെള്ളം എടുക്കുന്നത് ഇപ്പം അത് നല്ല രീതിയിലുള്ള പാടും കാര്യങ്ങളൊക്കെയുണ്ട് കാരണമെന്താണെന്ന് വെച്ച്കഴിഞ്ഞാൽ ഇപ്പം വെള്ളം കുറച്ച് ആഴമുള്ള കിണറൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ വലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വരൂള്ളൂ അപ്പം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഒന്നും ആകാനൊന്നും പോകുന്നില്ല അപ്പം നമ്മൾ കൂടുതലായിട്ടും നല്ല രീതിയിൽ കോരണ്ടിയും കാര്യങ്ങളൊക്കെ വരും കാരണമെന്താണെന്ന് വെച്ച്കഴിഞ്ഞാൽ ഓരോ ബക്കറ്റ് നിറയുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കോരേണ്ട ആവശ്യവും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മോട്ടർ ഇലക്ട്രിക്ക് മോട്ടറും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വയറിങ്ങൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വിച്ചിട്ടാൽ മതി നമ്മൾ മോട്ടർ പൈപ്പിട്ട് അതിനുള്ളിലേക്ക് ഇറക്കി വെക്കുകയും ഇപ്പോൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന മോട്ടർ വരെ ഇപ്പോൾ ലഭ്യമാണ് ഇപ്പോൾ ഇതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജെറ്റ് ജസ്റ്റ് നമ്മളൊന്ന് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടാങ്കിലേക്ക് വീഴും നമുക്കിപ്പോൾ പൈപ്പ് ഇപ്പോൾ അടുക്കളയിലാണെങ്കിലും ബാത് റൂമിലാണെങ്കിലും നമുക്കിപ്പോൾ എവിടെയാണെങ്കിലും ജസ്റ്റ് പൈപ്പൊന്നു തുറന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മളുടെ വിരൽ തുമ്പിലും കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒക്കെയാണ് ചെയ്യാറ്